ഹലോ അതെ പറഞ്ഞോളൂ ആരായിരുന്നു ആ അത് ട്രഡീഷണൽ ഫുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നാടൻ ഊണാണ് സർ മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ ആ പിന്നെ അതിൻ്റെ കൂടെ വേറെ വേറെ മറ്റേ ഫിഷ് ഐറ്റം ഉണ്ട് വേറെ പല പല വിധത്തിലുള്ള ഇതുകളുണ്ട് നാടൻ ആയിട്ടുള്ള പല പല ഐറ്റങ്ങളുണ്ട് സാറിന് എന്തായിരുന്നു വേണ്ടത് ആ ന മീൽസ് കപ്പ മീൻ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ആണോ സർ

ഓക്കേ ഓക്കേ വേണ്ടിയിട്ടാണ് അല്ലേ ആ എല്ലാ എല്ലാ രീതിയിലുള്ള ഫുഡും കിട്ടും സാർ എവിടുന്നാണ് വരുന്നത് സാറിന് സ്റ്റേയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ എറണാകുളത്ത് നിന്നാണ് വരുന്നത് അല്ലേ മീൻ ആ പുഴ മീൻ കിട്ടും സർ മറ്റേ ഇത് കിട്ടും പിലോപ്പിയ അങ്ങനത്തെ പല പല ഐറ്റങ്ങളൊക്കെ കിട്ടും ആ ആ ആ റൂംസ് അവൈലബിൾ ആണ് സർ എ സി ഉണ്ട് നോൺ എ സി ഉണ്ട് എല്ലാ ഇതും ഉണ്ട് നമുക്ക് ആ അത് ഓർഡർ ഓർഡർ അനുസരിച്ച് റൂമിലേക്ക് എത്തിക്കേണ്ടത് എത്തിക്കും അല്ലാത്തവർക്ക് ഡൈനിങ് ഇതിലിരിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് മറ്റേ മറ്റേ ഇതായിട്ടുള്ളവർക്ക് എല്ലാവർക്കും കൂടിച്ചേർന്ന് ഇരിക്കാം അല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ട് റൂമിൽ വേണ്ടവർക്ക് റൂമിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് സർ ആ കൊണ്ടുപോകുന്നുണ്ട് ഊണിന്റെ കൂടെ ഇപ്പോൾ നമുക്ക് വരുന്നത് മറ്റേ എട്ട് കൂട്ടം കറികളും രണ്ട് കൂട്ടം പായസവും അങ്ങനത്തെ പിന്നെ ഫിഷ് ഐറ്റം പിന്നെ നോൺ വെജ് ആയിട്ടുള്ള ഇതും വരുന്നുണ്ട് അങ്ങനെ എന്താണോ ഒരു ഫുള്ളി മെനു ആണ് അത് വരുന്നത് അതിൽ നമുക്ക് വേണ്ടാത്ത ഇത് നമുക്ക് കട്ട് ചെയ്യാം അതാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ